എനിക്ക് വളർത്ത് മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ പട്ടികുട്ടികളെയും അതുപോലെ ഇപ്പോഴത്തെ പൂച്ചകളുണ്ടല്ലോ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്ന ഓരോ പേരുകളുണ്ടല്ലോ അതിന് അതൊക്കെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ എൻറെ വീട്ടിൽ വളർത്തുന്നത് ഇഷ്ടമല്ല എൻറെ വീട്ടിലൂടെ ഓടി കളിക്കുന്നത് എനിക്ക് കാൽൻറെ ഇടയിലൂടെ ഒക്കെ ഓടി കളിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് മൃഗങ്ങളെ എനിക്ക് ഇഷ് പെറ്റ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പോലും വീട്ടിൽ വളർത്തുന്നത് എനിക്ക് പേടിയാണ് മാന്തുമോ അല്ലെങ്കിൽ കടിക്കുമോ അതിൻറെയൊക്കെ ഒരു പേടി ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻറെ രോമങ്ങളൊക്കെ വീട്ടിൽ പൊഴിഞ്ഞാലൊക്കെ അത് വയറ്റിൽ ചെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഭക്ഷണ സാധനങ്ങളിലൊക്കെ പോയാലും അത് വയറ്റിലെത്തിയാൽ ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ അതിൻറെ ഒരു പേടിയുണ്ട് അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലാണ്ടെനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ കുറച്ചു കൂടി കഴിഞ്ഞ് എൻറെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ വളർത്തണമെന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ എനിക്ക് ചെറിയ ഈ പൂച്ച പൂച്ചക്കുട്ടികളുണ്ടല്ലോ അതിനെയാണ് ഇഷ്ടം ഇപ്പം വാങ്ങുന്ന പൂച്ചക്കുട്ടി ഇപ്പോൾ നല്ല രോമങ്ങളൊക്കെയുള്ള ജടയുള്ള ഒരു പൂച്ചകുട്ടിയുണ്ടല്ലോ പട്ടിയെ പോലെയുള്ള ഒരു പൂച്ച കുട്ടി അതിനെയൊക്കെ വാങ്ങുന്നത് ഇഷ്ടമാണ്